നമ്മുടെ ജീവിതത്തില് പ്രത്യേകമായൊരു സ്ഥാനം കലകൾക്കുണ്ട് നമ്മളൊരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതല് ചിലപ്പോൾ നമ്മള് പാട്ട് കേട്ട് റേഡിയോ കേട്ട് എഴുന്നേൽക്കുന്ന ആൾക്കാരുണ്ട് പാട്ട് കേട്ട് രാവിലത്തെ പണികള് മൊത്തം അടുക്കളയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലേ ഇപ്പം നമ്മള് രാവിലെ എഴുന്നേറ്റ് കുളിച്ചു ഒരുങ്ങി നമ്മുടെ ജോലിക്ക് വേണ്ടി നമ്മള് നമ്മുടെ സ്വന്തം കാറില് പോകുവാണേൽ നമ്മള് പാട്ടിട്ടാണ് ചിലപ്പം പോകാ അല്ലെങ്കില് നമ്മളൊരു ബസിൽ കയറിയിട്ടുടെങ്കില് രാവിലെ തന്നെ നല്ല ഭക്തി ഗാനം കേട്ടിട്ട് നമുക്ക് പോവാൻ പറ്റും അല്ലേ ആ ഒരു നമ്മുടെ രാവിലത്തെ ആ ഒരു മാനസികാവസ്ഥയെ അത് നമക്ക് സ്വാധീനിക്കാൻ വേണ്ടി പറ്റും പിന്നെ കലകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് പാട്ട് മാത്രമല്ല ഡാൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും കരകൗശലമായ കാര്യങ്ങള് ചെയ്യുന്നത് ഇപ്പം പാട്ടും ഡാൻസും അല്ലാതെ എന്തെങ്കിലും പ്രവർത്തി ആയിട്ട് ബന്ധപ്പെട്ട് കരകൗശലങ്ങള് അല്ലെങ്കില് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് അത് അത് അവരുടെ മാനസികാവസ്ഥയെ വളരെയധികം സ്വാധീനിക്കുന്ന ഒന്നാണ് നമുക്ക് ഒരു സാധനം ഒരു ഒരു എന്തെങ്കിലും ഒരു വസ്തു നമ്മള് നല്ല ആത്മാർത്ഥതയോടെ നമ്മള് നമ്മുടെ കഴിവുകള് മൊത്തം ഉപയോഗിച്ചൊരു കലാരൂപം സൃഷ്ടിക്കുവാണെന്ന് വിചാരിച്ചോ നമ്മളത് കാണുമ്പോൾ നമ്മടെ നമ്മള ജീവിതം ധന്യമായൊരു അനുഭൂതിയാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ ഇപ്പം നമ്മള് മാത്രമല്ല നമ്മള് ഓരോ കലകളിലും നമ്മള് വ്യാപൃതരായിക്കൊണ്ട് ഇരുന്നിട്ടുണ്ടെങ്കില് നമുക്ക് സമൂഹത്തില് അത് നമ്മള് നമുക്ക് നമ്മുക്കുണ്ടാവുന്ന മാറ്റം നമുക്ക് നമ്മുടെ സമൂഹത്തില് പ്രതിഫലിപ്പിക്കാൻ വേണ്ടി പറ്റും നമ്മളുടെ ജീവിതം കണ്ട് പ്രചോദനം ഉൾക്കൊണ്ട് കുറച്ചുപേരെങ്കിലും അതിന്ന് കലയായിട്ട് മുന്നോട്ട് പോവാൻ പറ്റുമെങ്കില് അത്രേം നല്ലതല്ലേ ഒരു പരമാവധി നമ്മുടെ സമൂഹത്തില് നമ്മളുമായിട്ട് ചുറ്റപ്പെട്ട ആൾക്കാരുടെ ഇടയിലെങ്കിലും നമുക്കൊരു ഒരു എന്താപറയേണ്ടത് ഒരു സന്തോഷം നമുക്ക് നിറയ്ക്കാൻ വേണ്ടി സാധിക്കും അത് തന്നെ നല്ലൊരു നാളേക്ക് വേണ്ടീട്ടുള്ളൊരു പ്രതീക്ഷയായി നമുക്ക് മാറും